ഞങ്ങളെ കുടുംബത്തിൽ ആർക്കെങ്കിലും പനിയോ എന്തെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ സുഖമില്ലാണ്ടായിട്ടുണ്ടെങ്കിൽ പൊടിയരിക്കഞ്ഞി പപ്പടം ചുട്ടത് ചമ്മന്തി അങ്ങനെയൊക്കെയാണ് കൊടുക്കുക പിന്നെ ഈ അഞ്ചാംപനി അങ്ങനത്തെ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രാവിലെത്തന്നെ മല്ലീന്റെ വെള്ളം മല്ലീന്റെ വെള്ളത്തിനു തണുപ്പായിരിക്കുമല്ലോ മല്ലി വെള്ളം തിളപ്പിച്ചു വച്ചിട്ടുണ്ടാവും നല്ലം രണ്ട് മൂന്ന് ഗ്ലാസ്സ് കുടിക്കും അതു കഴിഞ്ഞിട്ട് പിന്നെ ഈ അവിൽ നനച്ചത് അവിലും ഉള്ളിയും കൂടി നനച്ചിട്ട് അതാണ് കഴിക്കുക പിന്നെ പൊടിയരിക്കഞ്ഞി അല്ലാതെ ഈ ചൂടുള്ള ആഹാരങ്ങളോ അങ്ങനെയൊന്നും കൊടുക്കില്ല അതുപോലെ പിന്നെ കുളിക്കുന്ന സമയത്താണെങ്കിലും വേറെയെന്തെങ്കിലും അസുഖം മഞ്ഞപ്പിത്തം അങ്ങനെയൊക്കെ ഓരോ അസുഖങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം തിളപ്പിച്ചാറിയ നല്ല വെള്ളം അതുപോലെ കുളിക്കുന്നുണ്ടെങ്കിൽ തന്നെ മറ്റേ ആര്യവേപ്പിന്റെ ഇല അതൊക്കെ ഇട്ടിട്ടാണ് കുളിക്കുക